അതിന് പ്രത്യേകിച്ച് ഒരു വയസ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഏതൊരു കുട്ടിക്കും ഏതൊരു പ്രായത്തിൽ വേണെങ്കിലും ആരംഭിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ചിത്ര രചനയൊക്കെ ഓരോ കുട്ടികളുടെ കഴിവ് അനുസരിച്ച് ഇരിക്കും അവരവരുടെ ഈ കലകളുടെ ആരംഭം ഒക്കെ ഒരു കുട്ടിക്ക് സ്വയം തോന്നി ചെയ്യുമ്പോഴാണ് അത് കുറച്ച് കൂടെ തൃപ്തികരാവുക അല്ലാണ്ട് ഒരാൾ നിർബന്ധിച്ച് അത് ചെയ്യുമ്പോൾ അതിലൊരു തൃപ്തി ഉണ്ടാവില്ല ആ കുട്ടിക്ക് എന്ത് തോന്നുന്നോ അത് ചെയ്യുമ്പോഴാണ് അതിനൊരു തൃപ്തി വരിക പിന്നെ ഒരു ശരിയായ പ്രായം എന്ന് പറയാൻ അങ്ങനെ ഒരു വയസില്ല ഏതൊരു കുട്ടിക്കും എപ്പോ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ചിത്ര രചനയൊക്കെ കുട്ടിയുടെ കഴിവ് അനുസരിച്ചിരിക്കും കൂടുതൽ ആയിട്ടുള്ളത് പിന്നെ അതിന് പ്രത്യേകിച്ച് ഒരു വയസ്സുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് ചിത്രരചന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇൻട്രെസ്റ്റ് തോന്നി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻട്രെസ്റ്റ് ഇല്ലാണ്ട് ചെയ്യുമ്പോൾ അത് അത്ര മനോഹരം ഒന്നും ആയിരിക്കില്ല ഇൻട്രെസ്റ്റോടു കൂടി ചെയ്യുമ്പോൾ കുറച്ച് കൂടെ അതൊരു മനോഹരമായ ഒരു ചിത്രമായിട്ട് വരും പിന്നെ അതിന് ഉണ്ടായി വരുന്ന പിള്ളേർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് ഒരു മൂന്ന് ടു മൂന്ന് വയസ്സ് തൊട്ടൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും ചെറിയൊരു ചെറുതായിട്ട് ഇങ്ങനെ പെൻസിലൊക്കെ പിടിച്ചു തുടങ്ങുന്ന ഒരു പ്രായം അതാണ് കുട്ടികളുടെ ആ ഒരു വയസ്സ് തൊട്ട് ഏതൊരു കുട്ടിക്കും എപ്പോ വേണെങ്കിലും ചിത്രം വരയ്ക്കാൻ പറ്റും ഏതൊരു കുട്ടിയും ആഗ്രഹിക്കണ പോലെ വരണം എന്നൊന്നുമില്ല എങ്കിലും ചെയ്ത് ചെയ്ത് പരിശീലിച്ച് ബെറ്ററാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചിത്രരചന